ഓരോ ഋതുക്കളും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത് മഴക്കാലമായാലും മഞ്ഞുകാലമായാലും വേനൽക്കാലമായാലും ആ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒരു ജീവിത രീതികളിലായിരിക്കും നമ്മൾ കടന്ന് പോവുക ഭക്ഷണ വിഭവങ്ങൾ വസ്ത്രം എല്ലാത്തിലും വ്യത്യസ്തത ഉണ്ടാവും വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ അതൊരു മാമ്പഴക്കാലം എന്ന് വേണമെങ്കിൽ പറയാം അപ്പം നമ്മുടെ ഭക്ഷണ വിഭവങ്ങൾ തന്നെ ചക്ക മാങ്ങാ അതൊക്കെ ആയിരിക്കും അപ്പോൾ പലരും ബന്ധുവീടുകളിലൊക്കെ പോകുമ്പോൾ ഈ വിഭവങ്ങളൊക്കെ കൊണ്ട് പോകും അവിടെ ഉള്ള വിഭവങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ട് വരുകയും ചെയ്യും പിന്നെ മഴക്കാലത്ത് ഈ വേനൽക്കാലത്ത് ശേഖരിച്ച് വച്ച വിഭവങ്ങളൊക്കെ എടുത്ത് ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കും ഞാൻ ഓർക്കുന്നു വേനൽക്കാലത്ത് വേനലവധിക്ക് ബന്ധുവീടുകളിലൊക്കെ നിൽക്കാൻ പോകും അടുത്തുള്ള പറമ്പിലും പുഞ്ചയിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കും മാങ്ങയും പേരയ്ക്കയും ചാമ്പയ്ക്കയൊക്കെ പറിച്ച് തിന്നുക അതൊക്കെ രസകരമായ അനുഭവങ്ങളാണ് പഴുത്ത മാങ്ങ കൂടുതൽ ഉള്ളപ്പോൾ അന്ന് മുത്തശ്ശിയൊക്കെ ചെയ്തിരുന്ന ഒരു കാര്യമാണ് പനമ്പിൽ ഈ പഴുത്ത മാങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് മാങ്ങാ തെര ഉണ്ടാക്കും വെയിലത്ത് ഉണക്കിയെടുത്ത് ഉണ്ടാക്കുന്നൊരു വിഭവമാണ് മാങ്ങാ തെര ഇത് ഒരു വർഷത്തോളം അത് കേടാകാതെ ഇരിക്കും അതൊക്കെ വളരെ രസകരമായ ഒരോ വിഭവങ്ങളാണ്